നമ്മുടെ ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയെന്നു പറയുന്നത് നമ്മൾ ഹിന്ദിയാണ് നമ്മൾ കുഞ്ഞുനാൾ തൊട്ടേ പഠിച്ചുവരുന്ന ഒരു പാഠപുസ്തകമെന്നു പറയുന്നതും ഹിന്ദി കൊച്ചുനാൾ തൊട്ടേ നമ്മൾ പഠിച്ചു വരുന്നുണ്ട് നമ്മുടെ മാതൃഭാഷ ഹിന്ദി തന്നെയാണ് അതിന് പുറമെ നമ്മൾ നമ്മുടെ ചുറ്റുപാടുമുള്ള നമ്മുടെ ഇന്ത്യയെ വെച്ചുനോക്കുമ്പോൾ തന്നെ നമ്മുടെ നമ്മുടെ ഇതിൽ നാല്പത് നാല്പത്തിനാല് അധികം അതിലും അധികം കുറേ ഭാക്ഷകൾ നമ്മുടെ ഇടയിലൊക്കെയുണ്ട് അതിൽ എല്ലാം ഒന്നും ഒരുപക്ഷെ നമുക്ക് പഠിക്കാനായിട്ട് കഴിയുകില്ല എന്നെ സംബന്ധിച്ചെടുത്തോളം എനിക്ക് തമിഴ് അറിയാം മലയാളം അറിയാം ഇംഗ്ലീഷ് അറിയാം ഹിന്ദി വായിക്കാനറിയാം അങ്ങനെ തുടങ്ങിയതൊക്കെയുണ്ട് ഭാഷാ വൈവിധ്യത്തെക്കുറിച്ചെന്നു പറയാമെങ്കിൽ നമുക്ക് ഓരോ നാടിനും അതിൻ്റേതായിട്ടുള്ള കൾച്ചറിൻ്റെ അടിസ്ഥാനത്തിൽ ഭാഷകളും അതു ചിലപ്പം നമുക്ക് നമ്മളിപ്പം ഒരു മലയാളി ഇപ്പോൾ തമിഴ്നാട്ടിൽ പോവുകയാണെങ്കിൽ ഒരുപക്ഷെ തമിഴ്നാട്ടിൽ തമിഴ് ചിലപ്പോൾ ഒരുപക്ഷേ നമുക്ക് കുറച്ചെല്ലാം മനസ്സിലാക്കാനും പറ്റും പക്ഷേ അതിനെ അപേക്ഷിച്ച് നമ്മൾ ഈ ഡൽഹി ഹിന്ദി നാടുകളിലോട്ടൊക്കെ തുടർന്ന് നോർത്ത് ഇന്ത്യയിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ ഒരുപക്ഷേ നമുക്ക് ഭാഷ അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ ഏറെ ബുദ്ധിമുട്ടും അത് ഭാഷകൾകൊണ്ട് വൈവിധ്യത്തെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്നു പറയുമ്പോൾ രാജ്യഭാഷ പിന്നെ ഭയങ്കര നല്ല അഭിപ്രായമാണ് എന്തുകൊണ്ടും വളരെ മികച്ച അഭിപ്രായം തന്നെ എന്തുകൊണ്ടും വളരെ നല്ലതാണ് നമ്മൾ കൊച്ചുനാൾ തൊട്ട് നമ്മൾ നമ്മൾ ഹിന്ദിയും ഇംഗ്ലീഷും മലയാളമൊക്കെ കേരളത്തിൽ പഠിച്ചതുകൊണ്ട് മലയാളവും പഠിക്കുന്നുണ്ട് ഇപ്പോൾ വേറെ ഇപ്പം ഹിന്ദി തമിഴ്നാട്ടിലാണെങ്കിൽ തമിഴും ഹിന്ദിയും എന്തിലാണെങ്കിലും നമ്മൾ എന്തു പഠിച്ചാലും ഹിന്ദിയെന്നു പറയുന്നൊരു ലാങ്വേജ് നമ്മുടെ മാതൃഭാഷ നമ്മൾ കീപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ പോവാറുണ്ട് അതിൽ വളരെ മുമ്പും ഉപയോഗിക്കാറുണ്ട്